ആ ഹലോ ഞാൻ പാലക്കാട് നിന്നാണ് വിളിക്കുന്നത് ഞാൻ നിങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ഒര് അഞ്ഞൂറ് പേർക്കുള്ള ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ആ അതിൻ്റെ ക്യാഷ് അയച്ചിട്ടുണ്ട് പക്ഷെ പൈസ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോയിട്ടുണ്ട് പക്ഷെ നിങ്ങളുടെ അവിടെ എത്തിയിട്ടില്ല അപ്പോൾ എനിക്ക് വേറെ മെസ്സേജ് ഒന്നും വന്നില്ല പൈസ പൈസ എന്റെ അക്കൗണ്ടിൽ നിന്ന് പോയി അത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നോ എന്ന് അറിയില്ല അപ്പോൾ ഞാൻ ഒന്ന് ബാങ്കുമായി ബന്ധപ്പെട്ടിട്ട് വേണ്ട ഇത് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ കയറിയാൽ ഒന്ന് മെസ്സേജ് അയക്കണേ ആ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ക്യാഷ് ആ കറക്ട് അല്ലെ ആ ഓക്കേ ഓക്കേ